ആ ഹലോ സാർ പറയു ആ ആ ഓക്കെ ഓക്കെ ഓക്കെ എങ്ങനെയാണ് സാർ അത് നമ്മുടെ വീട്ടിലേക്ക് ഉള്ളതാണോ അതോ ഓഫീസിലേക്ക് ഉള്ളതാണോ നോക്കുന്നത്

ആഹാ ഓക്കെ ആഹാ ഓക്കെ ഷുവർ നമുക്ക് ഇപ്പോൾ പർച്ചെയ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഓഫേഴ്സോട് കൂടിത്തന്നെ നമുക്ക് പർച്ചെയ്സ ചെയ്യാം എല്ലാകാര്യത്തിനും എക്സ്ചേഞ്ച് ഓഫറും ഉണ്ട് ഇപ്പോൾ പഴയതുണ്ടെന്നുണ്ടെങ്കിൽ കൊണ്ട് വന്ന് കഴിഞ്ഞാൽ നമുക്ക് പുതിയത് അതിൻ്റെ കൂടെ എക്സ്ട്രാ ഡിസ്ക്കൗണ്ട് വെച്ചിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യും ഇപ്പോൾ നമുക്ക് കട്ടിലാണെന്ന് ഉണ്ടെങ്കിൽ ആഹാ അതെ അപ്പോൾ നമുക്ക് ഇപ്പോൾ കട്ടിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ ഏകദേശം സ്റ്റാർട്ടിങ്ങ് പ്രൈസൊരു എയ്റ്റ് തൗസൻറ്റ് സെവൻ തൗസൻറ്റ് ഒക്കെ നമുക്ക് പ്രൊമോട്ട് ചെയ്യും ലോവസ്റ്റായിട്ട് പിന്നെ അത്യാവശ്യം നല്ല ഡ്രോസും കാര്യങ്ങളൊക്കെ ബോക്സ്കോട്ട് വരുന്നുണ്ട് അതേപോലെ നമുക്ക് ബെഡ്കൾ വരുന്നുണ്ട് നല്ലൈറ്റം പിന്നെ ബെഡിന് ഈ പറയുന്നത് പോലെ പന്ത്രണ്ട് ട്വൽവ് തൗസൻറ്റ് വരും അത് ഫുൾ സ്പ്രിങ്ങാണെന്നുണ്ടെങ്കിൽ ഏകദേശം വരും അല്ലെങ്കിൽ ഹാഫ് സ്പ്രിങ്ങാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചൂടെ കുറയും അത്ണ്ട് ഡായനിങ്ങ് ടേബിള് വിത്ത് ചെയേഴ്സാണെന്ന് ഉണ്ടെങ്കിൽ ഒരൂ ട്വൻറ്റി റ്റു കെ വരും അതായത് ഗ്ലാസ് ടോപ്പാണ് ഫുള്ളി അത് വിത്ത് ചെയേഴ്സ്ണ്ടാവും ആ അത്യാവശ്യം ഡിസൈനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ വരണം എങ്ങനെ വുഡ് വുഡ് പ്ലാവിൻ്റെ വരുന്നുണ്ട് പിന്നെ തേക്ക് വരുന്നുണ്ട് പിന്നെ ഈ കട്ടിലും കാര്യങ്ങളൊക്കെ ഈ മൾട്ടി വുഡും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കുറെ എണ്ണം വരുന്നത് തേക്കിൻറ്റെ ആകുമ്പോൾ നമുക്ക് ഒന്നൂടെ പൈസ റെയ്ഞ്ച് കൂടും കാരണം അത്യാവശ്യം ആൾക്കാരൊക്കെ വന്ന് തേക്കിൻറ്റെ ആകുമ്പോൾ എങ്ങനെ അതൊരു സെവൻ തൗസൻറ്റോളം വ്യത്യാസം വരും തേക്കിൻറ്റെയാണ് എടുക്കുന്നത് എങ്കിൽ അത്യാവശ്യം നല്ല നിങ്ങൾ ഡിസൈന് കാണിച്ച് തരുകയാണെന്ന് ഉണ്ടെങ്കിൽ നമ്മൾ ഇതെന്നെ നമ്മൾ ആ ഡിസൈൻ അത് ഉണ്ടാക്കി തരുന്നതാണ് പ്രൊഡക്ഷൻ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസൈൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനിപ്പോൾ കട്ട്ളിലെന്തെങ്കിലും ഡിസൈനോ അല്ലെങ്കിൽ അലമാരയുടെ എന്തെങ്കിലും ഡിസൈൻസ് ഉണ്ടെന്ന് ഉണ്ടെങ്കിൽ അത് കാണിച്ച് തരുകയാണെന്ന് ഉണ്ടെങ്കിൽ നമുക്ക് പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ തന്നെ ചെയ്യും നിങ്ങൾ നേരിട്ട് വന്ന് ഷോപ്പിൽ വന്ന് കണ്ട് ഡിസൈനൊക്ക പറ്റുകയാണെന്ന് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ തരാൻ പറ്റുന്നതാണ് അത്യാവശ്യം ഇത് വീട് പുതിയതായിട്ട് ആ തീർച്ചയായിട്ടും ഓണമായിട്ട് നല്ല ഓഫേഴ്സും ഉണ്ട് ആളുകൾ നല്ലത് പോലെ അന്വേഷിച്ച് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് സോഫാ സെറ്റി ഇനി ഇപ്പോൾ ഓഫീസ് റൂമിലേക്ക് സോഫാ സെറ്റിയെട്ക്കണം എന്നുണ്ടെങ്കിൽ സോഫയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം പ്രൈസ് ലോവായ്ട്ടന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആഹാ ഓക്കെ ഓക്കെ വന്നാൽ വന്നാൽ മതി ശരി എന്നാൽ ഓക്കെ താങ്ക് യൂ